ഞങ്ങളുടെ പ്രദേശത്തെ വാർത്തകൾക്ക് വേണ്ടത്ര മാധ്യമ ശ്രദ്ധ പലപ്പോഴും ലഭിക്കുന്നില്ല എൻ എന്തുകൊണ്ടാണെന്നെനിക്കറിയില്ല പക്ഷെ ഒരു പക്ഷെ ഇവിടുത്തെ പ്രാദേശിക ലേഖകർ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകാത്തതു കൊണ്ടായിരിക്കും എങ്കിലും പ്രധാനമായിട്ടും ഞങ്ങളുടെ ഒരു വഴിയാണ് ഈ വഴി ഒരു രണ്ടു മൂന്നു വർഷമായിട്ട് താറുമാറായി കിടക്കുകയാണ് അതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിനു വേണ്ടത്ര ശ്രദ്ധ നേടിയെടുക്കാനായിട്ടു കഴിഞ്ഞിട്ടില്ല ഇത് എപ്പോഴുമൊന്നും വരില്ല കാരണം ഇതിനു വേണ്ടി പ്രതിഷേധിക്കുന്നവരെ സമരക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ സമരത്തെ അടിച്ചമർത്താൻ നോക്കുന്നതു കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇതിനു വേണ്ടിയിട്ട് അധികമാൾക്കാർ മുൻപോട്ട് വരാത്തതെങ്കിലും ഒന്നു രണ്ട് സമരങ്ങളൊക്കെ നടന്നു പക്ഷെ അതൊക്കെ നമ്മളുടെ പ്രാദേശിക മായിട്ട് അറിയുന്ന പ്പെടുന്നുണ്ടെങ്കിലും മറ്റു സ്ഥലങ്ങളിലേക്ക് ഈ സ്ഥലത്തെ പ്രശ്നങ്ങൾക്ക് വളരെ പ്രാധാന്യമൊന്നും ലഭിക്കുന്നില്ല പക്ഷെ ഇത് അതിലും വലിയൊരു ചർച്ചയായി മാറുന്നില്ല കാരണം ഇതു ജനജീവിതത്തെ വളരെയേറെ സാരമായി ബാധിച്ചിരിക്കുകയാണ് ഇങ്ങോട്ടുള്ളൊരു ഒന്നര രണ്ട് കിലോ മീറ്റർ ദൂരത്തോളം വഴി വല്ലാതെ ദുഷ്കരമായി ത്ത നിർമ്മിക്കുകയാണ് അതായത് യാത്ര ചെയ്യുന്നതിന് രോഗികളെ കൊണ്ടു പോകുന്നതിനൊക്കെ വളരെ പാടാണ് ഇതു പക്ഷെ മാ മാധ്യമങ്ങൾ വളരെ ശ്രദ്ധ കൊടുത്ത് എല്ലാ പൊതുജനസമക്ഷം മുൻപാകെ അല്ലെ കേരളം മുഴുവനത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെയ് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളും ഈ വഴിയുണ്ടാക്കുന്നുണ്ട് പാറപ്പൊടിയൊക്കെയാണ് അപ്പം ഇച്ചിരി മഴയായിക്കഴിഞ്ഞാൽ പിന്നത് ചെളിയും ഒക്കെയാണ് നടക്കാൻ പറ്റുന്നില്ല ഇച്ചിരി വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാലുടനെ ഇതു ഭയങ്കര പൊടിയും കാറ്റുമാണ് നമ്മൾക്ക് അന്നേരവും ബുദ്ധിമുട്ടാണ് മാസ്ക് ധരിക്കാതെ ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്തെയൊരു അവസ്ഥയാണ് ഈ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് ഈ വഴി പക്ഷെ ഇതിനു വേണ്ടത്ര മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നില്ല അതുപോലെതന്നെ ഇവിടുത്തെ പാടത്തിലെ ചില സമയങ്ങളിലൊക്കെ പാടത്തിൽ വെള്ളം കയറി കൊയ്ത്തു നടക്കാതൊക്കെ പോകുന്നുണ്ട് അതിനേക്കുറിച്ചുമൊക്കെ ഒന്ന് കർഷകർക്ക് അതിനു വേണ്ടത്ര നഷ്ടപരിഹാരം കിട്ടുമോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇതൊക്കെ മാധ്യമങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടെ എന്തുകൊണ്ടോ അവതരിപ്പിക്കപ്പെടുന്നില്ല ലോകത്തിലുള്ള എല്ലാവരും ഇതൊന്നും കേരളത്തിൽ മൊത്തമിതൊന്നും ചർച്ചയാകുന്നില്ല ഉടനടി നടപടികളെടുക്കേണ്ട കാര്യങ്ങൾ പലപ്പോഴുമിങ്ങനേ ഒരു മാധ്യമ ശ്രദ്ധ കിട്ടാത്തതു കൊണ്ടുതന്നെ പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ് ഈ മാധ്യമ ശ്രദ്ധ കിട്ടുന്നതനുസരിച്ച് പലപ്പോഴും ഇതിന് ഉടനടി നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നാരോഗ്യ കാര്യങ്ങളിൽ അടിയന്തിരമായി ഒരു ശ്രദ്ധ ഉണ്ടാകുന്നതു നല്ലതാണ് കാരണം മഴക്കാലമാണ് അപ്പം പനി ബാധിച്ചിരിയ്ക്കയാണാൾകാർക്കൊക്കെ അപ്പോൾ അതിനുവേണ്ട ഒരൂ ആരോഗ്യ പരമായിട്ട് ഒരു ശുശ്രൂഷ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാത്രമെ ഉള്ളു അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ പോകണം അതിന് ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററൊ അങ്ങനെയൊന്നും ഞങ്ങളുടെ ഈ പ്രദേശത്തില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാദേശിക ലേഖകർ അതിനുള്ള ശ്രദ്ധ കൊടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇവിടൊരാശുപത്രിയൊക്കെ സ്ഥാപിതമായേനെ പിന്നെ വഴിയാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം പിന്നെ കുടിവെള്ള ക്ഷാമം അത് കഴിഞ്ഞ വർഷം വരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഒരു പൈപ്പ് ലൈൻ വന്നതുകൊണ്ട് ഭാഗ്യമായിട്ടിതൊക്കെ ഒരു പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ വഴി അടിയന്തിരമായ സത്വര ശ്രദ്ധ മാധ്യമങ്ങളിൽ ക്ക് മാധ്യമങ്ങളിൽ നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നത്തിനൊരൂ തീരുമാനമാകും അല്ലെങ്കിലിതെന്ന് കാലത്ത് ഒരു വർഷങ്ങൾ ഇങ്ങനെ നമ്മൾ സഹിക്കേണ്ടി വരും അതു കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് നമുക്ക് യാത്ര ചെയ്യുന്നതിനുമെല്ലാം ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് ഈ കാ ഈ റോഡിന്റെ കാര്യം സത്വര ശ്രദ്ധയിൽപ്പെട്ട് പെടേണ്ട ഭരണാധികാരികളുടെ സത്വ സത്വര ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെതന്നെ അ പാടശേഖരങ്ങളുടെ ആ ഒരു സംരക്ഷണം പിന്നെ ആവശ്യമായ അവർക്കാവശ്യമായ കൃഷി സാധനങ്ങളൊക്കെ ലഭിക്കുന്നതിനേക്കുറിച്ചുമൊക്കെ ഒരു മാധ്യമ ശ്രദ്ധ ആവശ്യമായിരിക്കുകയാണ് ഇതൊക്കെയൊന്ന് പ്രാദേശിക ലേഖകർ കഴിവതുമൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു